ഒരു ചിത്രം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ ചെയ്യുക ഒരൂ പ്ലെയിൻ പേപ്പർ ആദ്യം നല്ല ഫ്ളീനായിട്ടൊള്ളൊര് പേപ്പർ ആദ്യം എടുക്കും അതില് ചിലതിന് ഞാൻ ബോർഡർ ഇടാറുണ്ട് ചിലതിന് ബോർഡർ ഇടില്ല ബോർഡർ ഇടുന്നതാണെങ്കിൽ കൂടുതലും സാധാ ഈ പോട്രേയ്റ്റുകൾക്കൊക്കെയാണ് ഞാൻ കൂടുതലും ബോർഡേഴ്സ് ഇടാറ് അതല്ല സീനറി അങ്ങനെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബോർഡർ ഇടാതെയാണ് കുറച്ചും കൂടി നല്ലത് അത് ചെയ്തതിന് ശേഷം നമ്മളാദ്യം ഈ അ ആവിശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കും അത് പെൻസിലുകളാണെങ്കിൽ പെൻസില് ഫുൾ ഷാർപ്പെൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കണം അതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് വരച്ച് തുടങ്ങുമ്പോൾ ആദ്യം ഒരു റഫ് ഫിഗർ ആണ് വരയ്ക്കുക അത് വരച്ചതിന് ശേഷമാണ് നമ്മളതിന്റെ മുകളില് പെയ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പെയിറ്റിംഗും ഷെയ്ഡിങ്ങാണെങ്കിൽ ഷെയ്ഡിങ്ങും ചെയ്യുകയുള്ളു ഇപ്പം ഷെയ്ഡിങ് ചെയ്യുവാണെങ്കിൽ അതിനൻസരിച്ചിട്ടുള്ള പല ടൈപ്പ് പെൻസിലുകളുണ്ട് അത് നമ്മള് ഷാർപ്പെൻ ചെയ്ത് അതും കയ്യില് കരുതേണ്ടതാണ് അത് ചെയ്ത് തുടങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യവെന്താന്ന് വെച്ചാല് അത് നമ്മളുടെ കയ്യില് അതിന്റെ പാടുവന്നത് നമ്മള് വീണ്ടും ഈ പേജില് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അ അതിന്റെ ഒരു ആ പാട് വരുന്നത് നമ്മളൊഴിവാക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ പേപ്പറ് നമ്മുടെ കയ്യില് വെക്കണം ആ പേപ്പറ് കൈയ്യിൽ വെച്ചതിന് ശേഷം ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യണം അത് നമ്മുടെ കയ്യിന്റ അടിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ ചാർക്കോളിന്റെ പൗഡറ് നമ്മുടെ കയ്യിലാവുകയും അത് നമ്മുടെ പേപ്പർലായി പേപ്പറിൽ ആ ഒരു ചിത്രത്തിന്റെ ഒരു ഭംഗി തന്നെ കളയുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പം പെയ്ൻറ്റ് ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ നമ്മള് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം ഓയിൽ പെയിൻറ്റാണ് എന്നുണ്ടെങ്കിൽ ഓയിൽ പെയിന്റിനുള്ള സാധനങ്ങളെല്ലാം അതല്ല അക്രിലിക് ആണെങ്കിൽ ആക്രിലിക്കിനുള്ളത് വാട്ടർ കളറാണെങ്കിൽ അതിന് അനുസരിച്ച് വെള്ളവും ബ്രെഷും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അത് യൂസ് ചെയ്യേണ്ട രീതികളും വ്യത്യാസമുണ്ടാകും